ഇരുപത് എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ട് നാല് രണ്ടായിരത്തി നാല് പത്ത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരം ഇരുപതേ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്